സാങ്കേതികവിദ്യ എന്തുകൊണ്ടും ജീവിതത്തിൽ വളരെ ഉപകാരപ്രദം തന്നെയാണ് പ്രത്യേകിച്ചും മൊബൈൽ ഫോണുകൾ മൊബൈൽ ഫോണുകളുടെ വരവ് എന്ത് കൊണ്ടും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റി മറിച്ചു എന്ന് തന്നെ പറയാം അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെയധികം ഉപയോഗപ്രദമാണ് ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഉപയോഗിക്കാം അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ വളരെ ഉപകാരപ്രദമാണത് പിന്നെ അതിൻ്റെ ഉപയോഗം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം അത് സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ എന്താവുക അതിൻ്റെ അതിപ്രസരം ശരിക്കും ഒരു തെറ്റായ ഇത് തന്നെയാണ് അതിപ്പോൾ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഇപ്പം പണ്ടൊക്കെ വീടുകളിലൊക്കെ വൈകിയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക അല്ലേ രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ പറയുക അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം പക്ഷേ അതൊന്നും ഇല്ല എന്നാന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഈ മൊബൈൽ ഫോൺ കാണും അവര് അതിൽ പോയിരുന്നുള്ള അത് നോക്കുക അതുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അപ്പം വീടുകളിലൊക്കെ ശരിക്കും സംസാരം കുറഞ്ഞു അത് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കില് ശരിക്കും ഫോണിൻ്റെ വരവ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പം അതാണ് നമുക്ക് അതിൻ്റെ ഉപയോഗം നന്നായിട്ട് ഉപയോഗിച്ചാൽ അതിന് പ്രശ്നമൊന്നും ഇല്ല പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിലും അതില് ഒരുപാട് നല്ലതും ചീത്തയും വശങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കി അത് ഉപയോഗിച്ചാൽ വളരെ നല്ലൊരു കാര്യം ചെയ്യുകയാണ് പിന്നെ കുട്ടികളോടും മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം മാതാപിതാക്കള് പറഞ്ഞ് അവർക്ക് അതിനോട് വലിയ താൽപര്യം ഒന്നും ഇല്ല ഇനി ചില കുട്ടികളുണ്ട് നന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അത് എന്താണെങ്കിലും ഇത് സാങ്കേതിക വിദ്യ വളരെയധികം ജീവിതത്തിൽ തന്നെ ഉപയോഗം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തൊരു കാര്യത്തിനും അത് നല്ലത് തന്നെയാണ്